ഞാൻ പാലായിൽ നിന്ന് ഒരു യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പാലായിൽ നിന്ന് ഏറ്റുമാനൂര് വരെ എത്തുന്നതിനു വേണ്ടിയായിരുന്നു അത് ബുക്കെയ്തിരുന്നത് ഞാനതിന്റെ പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിരുന്നത് പാലാ ചർച്ച് ജംഗ്ഷനായിരുന്നു ചർച്ചിൻ്റെ ജംഗ്ഷൻ്റെ മുൻപിലായിരുന്നു അതിൻ്റെ പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിരുന്നത് പക്ഷെ എനിക്ക് ചില അത്യാവശ്യ ആവശ്യങ്ങൾ വന്നതോണ്ട് ഞാനതിൽ അവിടെ നിന്നും മാറി ഇപ്പോൾ പാലാ പോലീസ് സ്റ്റേഷൻ്റെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ പിക്കപ്പ് ലൊക്കേഷൻ ആ ഒരു സെക്ഷനിലേക്ക് മാറ്റി മാറ്റി സ്വീകരിക്കണം ഞാൻ ഓൾറെഡി അതിനു വേണ്ടിയുള്ള റിക്വസ്റ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനായിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് അതിൻ്റെ പിക്കപ്പ് ലൊക്കേഷൻ മാറ്റി അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്യണം എന്ന് അറിയിക്കുകയാണ് ഇതിനുവേണ്ട റിക്വസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വേറെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ദയവായിട്ട് അറിയിക്കേണ്ടതാണ്